ഉച്ചയൂണിന് സാധാരണയായിട്ട് ഞങ്ങൾ ചോറ് ആണ് ഉപയോഗിക്കുന്നത് ചോറിന് ഒരു സാമ്പാർ ഉണ്ടാവും ചില ദിവസങ്ങളിലെ സാമ്പാറായിരിക്കും അല്ലാത്ത ദിവസം ചിലപ്പം ചിക്കൻ ഉണ്ടാവും ചിലപ്പോൾ അതിനു പകരം തോരൻ കറി ഉണ്ടാവും വഴുതനങ്ങ ചീരയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ചക്ക സീസൺ ആണെങ്കിൽ ഞങ്ങൾക്ക് ചക്കക്കുരു ഉണ്ടാവും ചക്കക്കുരു തോരനും വയ്ക്കും അതുപോലെ തന്നെ ചാറും വയ്ക്കും അതേപോലെ അത്താഴത്തിനു ആണെങ്കിൽ ഞങ്ങൾക്ക് അധികവും കഞ്ഞിയായിരിക്കും ഒന്നുകിൽ കഞ്ഞിയും ചമ്മന്തിയും ആയിരിക്കും അച്ചാറും ആയിരിക്കും അല്ലെങ്കിൽ ചപ്പാത്തിയും സാമ്പാറോ എന്തെങ്കിലും ഒരു കറിയും ഉണ്ടാവും ഉച്ചയൂണിന് ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ രീതിയിൽ കറികൾ ഉണ്ടാക്കും ഒരു ദിവസം സാമ്പാർ ആണെങ്കിൽ മറ്റേ ദിവസം ചിക്കൻ വാങ്ങും അതേപോലെ ബീഫ് വാങ്ങും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ കറികൾ ഉണ്ടാക്കും ചുരുങ്ങിയ ദിവസങ്ങളിൽ ആഴ്ച്ചയിൽ ഒന്നൊക്കെ ഞങ്ങൾക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ എന്തെങ്കിലും വിഭവമായിട്ട് ഉണ്ടാക്കാറുണ്ട്